എനിക്ക് എന്നെ സംബന്ധിച്ചോളം എന്നെ കൂടുതലായിട്ട് ആകർഷിപ്പിക്കുന്നത് ബീച്ചിലാണ് ബീച്ചിലൊക്കെ പോകാനും വെള്ളത്തിലൊക്കെ ചാടി മറിയാനുമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ പിന്നെ സൂര്യാസ്തമയം കാണാൻ അതും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഇതൊക്കെ കൂടുതലും ആകർഷിപ്പിക്കുന്നത് അല്ലേലും ഓരോ യാത്രകളിലും ഓരോ കാഴ്ചകളും നമ്മളെ കൂടുതലും ആകർഷിപ്പിക്കുമല്ലോ അതുപോലെ ഒരു ഇതാണ് എനിക്ക് ഈ ബീച്ചിലൊക്കെ പോകാനും ആടെ ഭയ എനിക്ക് ഇഷ്ടമാണ് വെള്ളത്തില് കളി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോള് നമ്മള് മിക്ക എല്ലാവരെയും തന്നെ ആകർഷിക്കുന്ന ഇതാക്കുന്നത് ഈ മലകളും വനങ്ങളും ബീച്ചുകളും മഞ്ഞു മൂടിയ പർവ്വതങ്ങളും ഇടതൂർന്ന വനങ്ങളും സൂര്യാസ്തമയങ്ങളൊക്കെ നമ്മളെ മിക്കവരെയും ആകർഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല അതുപോലെ ഇതുപോലുള്ള നമുക്ക് കൗതുകം തരുന്ന ഓരോരോ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കാത്ത ആയിട്ട് ആൾക്കാരും വളരെ കുറവാണ് എനിക്ക് കൂടുതലും മൂന്നാർ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് മൂന്നാറിലെ നല്ല തണുപ്പും പിന്നെ അവിടെ സ്ട്രോബെറി കൃഷി ഉണ്ട് അതൊക്കെ കാണാനും അവിടെ കൂടുതലായും നമ്മുടെ വെളിയിൽ നിന്നുള്ള ആൾക്കാര് പോലും അതായത് ദൂരെ നിന്നുള്ള ആൾക്കാര് പോലും വരുന്നത് ഈ അവിടത്തെ മഞ്ഞ് ആസ്വദിക്കാനാണ് മഞ്ഞെന്നു പറഞ്ഞാല് അവിടെ നമ്മള് സ്റ്റേ ചെയ്ത് ഇതൊക്കെ ആസ്വദിക്കണം പ്രത്യേകം വൈബാണ് അത് രാവിലെ ചെറിയ വെയിലൊക്കെ വന്ന് തണുപ്പും ചൂടുമായിട്ട് നല്ല നല്ല തണുപ്പായിരിക്കും അപ്പോള് ഈ ചെറിയ വെയിലിൻ്റെ ചൂടിലിറങ്ങി ഇരിക്കാൻ ഭയങ്കര സെറ്റപ്പാണ് അത് അതനുഭവിച്ച് തന്നെ അറിയണം അതൊക്കെ ഓരോ കാര്യങ്ങളും നമ്മള് അനുഭവിച്ച് അറിയണം അപ്പോള് നമ്മള് എത്ര കഴിഞ്ഞാലും അത് മറക്കില്ല ഞാൻ തന്നെ മൂന്നാറിൽ രണ്ട് മൂന്നാലു തവണ പോയിട്ടുണ്ട് മൂന്നാറ് എന്നല്ല വട്ടവട എന്നു പറഞ്ഞ സ്ഥലത്ത് പോകണം അവിടെയാണ് ഇതൊക്കെ അതൊക്കെ നമുക്ക് എന്താണ് അവിടെ പ്രത്യേകിച്ച് അവിടെ ഫുഡിൻ്റെ കേസൊക്കെ എന്നു പറയുമ്പോള് റിസോർട്ടുകൾ അവിടെയൊക്കെ താമസിക്കണം അല്ലാതെ നമ്മളെപ്പോലെ സാധാരണക്കാരൊക്കെ പോവുകയാണെങ്കിൽ പോലും അവിടെ മെയിനായിട്ട് അങ്ങനെ ചോറ് സാധനങ്ങളൊക്കെ കിട്ടാൻ പാടാ അതായത് മെയിൻ കടകളിലൊക്കെ കുറവായിരിക്കും മാഗി പോലുള്ള വസ്തുക്കളാണ് അവിടെ കൂടുതലായിട്ടും കിട്ടുന്നത് എന്നിരുന്നാല് പോലും നമുക്ക് അവിടെ ചെന്നാല് വിശപ്പറിയില്ല ഫുഡിനേക്കാളും നമുക്ക് അവിടത്തെ ഓരോ കാഴ്ചകൾ കാണാനായിരിക്കും ഇഷ്ടം ഓരോ കൃഷികള് കാണാം വെളുത്തുള്ളി കൃഷിയുണ്ട് ഇപ്പോള് കൂടുതലായും കാരറ്റ് കൃഷിയുണ്ട് ഈ മൂന്നാറിൽ മെയിനായിട്ടും തേയില കൃഷിയാണ് പിന്നെ ഈ വട്ടവട എന്നുള്ളിടത്തോട്ട് പോകുമ്പോള് കൂടുതലും കാരറ്റ് ഉള്ളി പിന്നെ വെളുത്തുള്ളി കിഴങ്ങ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കൃഷി ചെയ്യുന്നത് നമുക്ക് അവരുടെ കൃഷി ഒക്കെ കാണാൻ നല്ല നമ്മളുടെ നമ്മളുടെ നാട്ടില് ഇങ്ങനെ ഇല്ലായിരിക്കുമല്ലോ ഇതൊക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലോ അപ്പോള് നമുക്കതൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതുപോ അതായത് എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മഞ്ഞു മൂടിയ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നതാണ് കൂടുതലും ഇഷ്ടം മഴ എനിക്ക് അത്ര ഇഷ്ടമല്ല മഴ ഇഷ്ടമാണ് പക്ഷേ എന്നാല്പ്പോലും ഒത്തിരി ഒന്നും ഇഷ്ടമല്ല എനിക്ക് കൂടുതലും മഞ്ഞ് വെയില് അങ്ങ ആ ഒരു കാ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ വനങ്ങളിലൊക്കെ പോകാൻ പേടിയാണ് സത്യം പറഞ്ഞാല് വലിയ മൃഗങ്ങളൊക്കെ ആക്രമിക്കുവോ എന്ന് അല്ലാണ്ട് വനങ്ങള് ഇഷ്ടമില്ലായ്ക ഒന്നുമില്ല ആ മലകളൊക്കെ നമ്മളിപ്പോള് നമ്മുടെ വീടിൻ്റെ അവിടെ നില്ക്കുമ്പോള് ദൂരെ മല കാണാമല്ലോ അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആണ് എന്നെ സംബന്ധിച്ച് കൂടുതലും എനിക്ക് ബീച്ചും മഞ്ഞ് മൂടിയ ഇടങ്ങളൊക്കെയാണ് ഇഷ്ടം